എനിക്ക് വേനൽക്കാല അവധിസമയത്ത് വിദേശത്ത് സന്നദ്ധപ്രവർത്തനം നടത്താൻ ഞാൻ ഒരു ആഗ്രഹിക്കുന്നു അപ്പം അതിന് വേണ്ടീട്ട് എനിക്ക് പാസ്പ്പോട്ടെടുത്താൽ പറ്റുകയുള്ളു അപ്പം പാസ്പ്പോർട്ടിനു വേണ്ടി എന്തൊക്കെ വേണമെന്ന് ഞാൻ അക്ഷയ കേന്ദ്രത്തിലൊന്ന് ചോദിച്ചിരുന്നു അന്നേരം അവർ പറഞ്ഞത് പാസ്പ്പോട്ടിന്റെ കോപ്പിക്ക് വേണ്ടിയിട്ട് റേഷൻ കാടിന്റെ കോപ്പി ആദാറിൻ്റെ കോപ്പി എസ് എസ് എൽ സിയുടെ കോപ്പി ഇത് മൂന്നും വേണമെന്നാണ് പറഞ്ഞത് അപ്പം ഞാനതനുസരിച്ച് ഞാൻ മൂന്നും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്പ്പോട്ട് എപ്പോൾ കിട്ടുമെന്നും എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളെന്നും എനിക്കൊന്ന് പറഞ്ഞ് തന്നാൽ കൊള്ളാമായിരുന്നു